ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല രീതിയിലുള്ള ആഘോഷങ്ങൾ ഒക്കെ ആഘോഷിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ കോഴിക്കോടെന്ന് കോഴിക്കോട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ ഈദുൽഫിത്തർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കോഴിക്കോട്ടുകാർക്ക് പൊതുവേ ജാതിഭേദമന്യേ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒന്നാണ് ഈദുൽഫിത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മുസ്ലീങ്ങളുടെ ഒരു ഇതാണെങ്കിലും പക്ഷേ എല്ലാ ആൾക്കാരും അതിനെതിരെ നല്ല നല്ല രീതിയില് അവര് ആഘോഷിക്കുന്ന ഒന്നാണ് ഈദുൽഫിത്തർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെ പല രീതിയിലുള്ള ഉത്സവങ്ങൾ ഒക്കെയുണ്ട് ഇപ്പോൾ അതായത് ശിവൻറെ അമ്പലത്തിലെ ഉത്സവം പിന്നെ വിഷ്ണുവിൻറെ അമ്പലത്തിലെ ഉത്സവം അങ്ങനത്തെ പല രീതിയിലുള്ള ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ ഒരു എന്താ പറയുക ഒരു സാംസ്കാരിക പരിപാടിയാക്കി അതായത് എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളിച്ചിട്ടൊക്കെയാണ് ആ കൂടുതലായിട്ടും ആ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് അങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ അതായത് ഓണമുണ്ട് ഓണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കാരണം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ ബീച്ചിൽ ഒക്കെ നമുക്ക് ബീച്ചിൽ ഫെസ്റ്റ് നടത്തുന്നതിനേക്കാട്ടും കൂടുതൽ ആളുകള് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ എന്താ പറയുക നമുക്ക് ഓണത്തിൻറെ ആ ടൈമിൽ ഒക്കെ കാരണം അവരുടെ ഓണാഘോഷ പരിപാടികൾ കാര്യങ്ങളൊക്കെ അവിടെയാണ് നടത്തുന്നത് പിന്നെ ക്രിസ്മസ് ഉണ്ടാകും വിഷു ഉണ്ടാകും അങ്ങനെ പല രീതിയിലുള്ള പരിപാടികളൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട്